കലാകാരന്മാരെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമാമേഖലയിലെ കലാകാരന്മാർ നേരത്തെയൊക്കെയാണെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാം ഭയങ്കര പീഡനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പീഡിപ്പിച്ചു അവർ പീഡിപ്പിച്ചു ഇവർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മൊത്തം വാർത്തകൾ എന്തോ ഒരു ഇതാ കേൾക്കുന്നവർക്ക് തന്നെ പക്ഷെ സിനിമാ സിനിമാമേഖലയെ വേണം വേണ്ട എന്നല്ല നമ്മൾ ഒക്കെയാണെന്ന് പറഞ്ഞാലും പോയി സിനിമ കാണാനും അല്ലെങ്കിൽ ഒരു സിനിമായെ വല്ലപ്പോഴും ആണെന്ന് പറഞ്ഞാലും ഒരു എഞ്ചോയ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആ സിനിമാലോകം സിനിമാടെ ഇതുതന്നെ വേണം അത് വേണ്ട എന്നല്ല പറയുന്നത് എന്നാലും വേണം ആ കലാകാരന്മാർ നല്ല മര്യാദക്ക് എല്ലാം മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഇപ്പോൾ അവർ പീഡിപ്പിച്ചു ഇവർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മൊത്തം വർത്തയാണെന്ന് പറഞ്ഞാൽ ഇപ്പം റ്റി വി വാർത്ത അങ്ങോട്ട് വെച്ചുകഴിഞ്ഞാൽ അവർ പീഡിപ്പിച്ചു ഇവർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ അവർക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്കാണ് എന്നുണ്ടെങ്കിൽ സുരക്ഷിതത്വം ആവശ്യമാണ് സ്ത്രീകൾക്ക് ഏറ്റവും അവശ്യം എന്ന് പറയുന്നത് സുരക്ഷിതത്വം ആണ് അവരെ എല്ലാ മേഖലകളിലും കടന്ന് ചെന്ന് പ്രവർത്തിക്കുന്നവരാണ് കൂടുതലും സ്ത്രീകളും അല്ലാതെ പുറയ്ക്ക് അകത്ത് ഇരുന്ന് ഇരുന്നുള്ള ഒരു ഇതല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുരയ്ക്കകത്ത് ഇരുന്ന് അല്ല എന്നുണ്ടെങ്കിൽ അവർ അമ്മമാരെകൂട്ടി അങ്ങനെയൊക്കെ ആയിരിന്നു നേരത്തെ പോകുന്നത് ഇന്നുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവർക്ക് അറിവുണ്ട് അതുകാരണം ഇതിനെ കുറിച്ചൊക്കെ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവർ സിനിമാലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചെങ്കിൽത്തന്നെയും ഇവർക്ക് അതിനെക്കുറിച്ച് എല്ലാം നല്ല അറിവാണ് ആ അറിവാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം അത് പീഡനം നടന്ന് കഴിഞ്ഞാൽ അവർ തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം സ്ത്രീകളെന്ന് പറയുന്നത് ആ ആ ഒരു മനസ്സാണ് അവർ അവിടെ കാണിക്കേണ്ടത് അല്ലെങ്കിൽ കുറേനാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല ഇതിനെപ്പറ്റി കുത്തിപ്പൊക്കേണ്ടത് ആ പീഡനം നടന്ന ഉടനെത്തന്നെയാണ് നല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനൊരു ഇതുണ്ട് ഇതിപ്പോൾ ഇത്രയും വർഷമായി ഇത്രയും വർഷത്തിന് മുമ്പ് ഉള്ള കാര്യങ്ങളാണ് ഇപ്പം പീഡനങ്ങൾ നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് കലാകാരന്മാർ എപ്പോഴും നല്ല നല്ല നല്ല മനുഷ്യരാണ് നല്ലവരാണ് അവരെയൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കലാകാരന്മാരെയൊക്ക നമുക്ക് സിനിമാനടന്മാരെയൊക്ക നമുക്ക് വലിയ കാര്യമാണ് അവരെ കൃത്യമായിട്ട് കലകളെല്ലാം അഭ്യസിച്ച് നമ്മളെ ചിരിക്കാനും സന്തോഷിപ്പിക്കാനും നമ്മുടെ മനസ്സിനെയെല്ലാം നല്ല ഒരു ഇത് വരുത്തുന്ന ഒരു കലാകാരന്മാരാണ് ഈ ഈ ഇവരൊക്കെ പക്ഷെ അവർ ഇങ്ങനെത്തെ പ്രവർത്തികളും കൂടെ ചെയ്യുമ്പഴത്തേക്കും നമുക്കും ഈ ഈ ലോകത്തിന് തന്നെയും അവർ ഒരു ഇത് ഒന്ന് ഒന്നും അല്ലാതെയായി പോയി അവരുടെ ആ ഇത്രയും നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെത്തെ വേണ്ടാത്ത പരിപാടികളൊക്കെ കാണിച്ച് കഴിയുമ്പഴത്തേക്കും അങ്ങനെയുള്ള ഒരു രീതിയിൽ വരിക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മോശമായ രീതിയല്ലേ ആ കാണിക്കുന്നത് അപ്പോൾ അവർ നല്ല രീതിക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഈ ഈ രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപുവാനായിട്ടുമാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് അവരെ നല്ല രീതിക്ക് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണം പരിശ്രമിക്കാനായിട്ട് അല്ലാതെ സ്ത്രീകൾ പുരയ്ക്ക് അകത്ത് ഇരുന്നാലോ മുറിക്ക് അകത്ത് അങ്ങനെയൊന്നും അല്ല മുന്നോട്ടു പോവേണ്ടത് അവർ ഇറങ്ങിത്തിരിച്ച് അവർ അവരുടേതായിട്ടുള്ള രീതിക്ക് പോയി എല്ലാ കഴിവുകളും തെളിയിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർ ഇനിയും മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം